സംസ്കൃതത്തിൽ നിന്ന് തന്നെ തന്നെയാണ് മലയാള ഭാഷ രൂപമെടുത്തിരിക്കുന്നത് നമ്മുടെ പല വാക്കുകളും സംസ്കൃതം തന്നെയാണ് ഉപയോഗം ഉപയോഗിക്കുന്നുണ്ട് മലയാള ഭാഷയിൽ അതുപോലെ തന്നെ ഇങ്ക്ളീഷ് മറ്റ് ഭാഷയിൽ മലയാള ഭാഷയെ സ്വാധീനിച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും മലയാളവാണ് സംസാരിക്കുന്നെങ്കിൽപ്പോലും ഇങ്ക്ളീഷിന്റെ വേർഡ്സ്സ് നമ്മുടെ സംസാര രീതീൽ കടന്നു കയറാറുണ്ട്